ഹലോ അതേലോ ആ ആ ഡ്രൈ ക്ലീന് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ നമുക്ക് എങ്ങനെയുള്ള തുണികളായിരുന്നു ആ നല്ല രീതിയിൽ നമുക്ക് ഡ്രൈ ക്ലീന് ഡ്രൈ ക്ലീന് ചെയ്ത് തരാമല്ലോ ഇല്ല ഇല്ല നമ്മൾ അത് പ്രൊഫഷണലായ രീതിയിലാണിത് ഡ്രൈ ക്ലീന് ചെയ്തു കൊടുക്കുന്നത് അതെയതെ ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഓ ഇത് വിലകൂടിയ സാരി ചുരിദാര് അങ്ങനെയുള്ള സാധനങ്ങള് കൊണ്ട് വന്നു നമുക്ക് ഡ്രൈ ക്ലീന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുള്ളതാണ്

ഓക്കേ ഓക്കേ ഏ മാഡം ഏതു ഭാഗത്തായിട്ടാണ് താമസിക്കുന്നത് ഏത് ഏരിയയിലാണ് ഡിപോൾ സ്കൂളിന്റെ അടുത്തല്ലേ ആ ഓക്കേ ഓക്കേ എന്നാൽ നമ്മുടെ ഇവിടെ ആ എന്നാൽ അവിടെ ഉദയഗിരിയില് ഒരു തായാങ്കൽ ബിനിറ്റെന്നൊക്കെ പറഞ്ഞ ചേട്ടനെ അറിയാവോ ഏത് ആ ആ ഓക്കേ ഓക്കേ ആ അതെയതെ അവിടെ ഒരു പലചരക്ക് കടയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പുള്ളിയുടെ ചേട്ടന് അനിയന് ആഹ് ഓക്കേ അവിടുത്തെ ആ ബിനുചേട്ടന് ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ് പുള്ളി സാരിയും പുള്ളിയുടെ വൈഫിന്റെ സാരി പുള്ളിയുടെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങള്ക്കിവിടെ കൊണ്ട് തന്നിട്ടുണ്ട് ആ പറഞ്ഞോ ആ ഓക്കേ ഓക്കേ

ആ മാഡം ഒന്നുകൊണ്ടും ആ മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങള് അതായത് കൃത്യമായ രീതിയില് ഞങ്ങളിത് ഡ്രൈ ക്ലീന് ചെയ്ത് തരുന്നതായിരിക്കും ഇല്ലില്ല കളറിന് ഡാമേജ് വരില്ല കളറിന് ഡാമേജ് വരാത്ത രീതിയിലിത് ഞങ്ങൾ ഡ്രൈ ക്ലീന് ചെയ്ത് തന്നേക്കാം

ഇല്ല ഇല്ല നൂല് കമ്പ്ലൈന്റ് വരത്തില്ല റേറ്റ് എത്ര രൂപയുടെ സാരി ആയിരുന്നു ചേച്ചി മാഡം അത് പതിനായിരം രൂപായുടെ ആ നമുക്കത് മാക്സിമം നമുക്കത് മാക്സിമം റേറ്റ് കുറച്ച് തന്നെ നമ്മളത് ചെയ്ത് തന്നെ തരാം ആ ഓക്കേ ഓക്കേ ഞങ്ങളത് പരമാവധി റേറ്റ് കുറച്ച് ഞങ്ങൾ ഡ്രൈ ക്ലീന് ചെയ്ത് വേണേൽ ചെയ്ത് തരാം മാഡത്തിന്

അത് ഞങ്ങളുടെ എജന്റ് വേണേൽ അവിടെ വന്ന് കളക്ട് ചെയ്യും മാഡത്തിന്റെ അഡ്രസ് ഒന്ന് ഞങ്ങൾക്ക് തന്നാൽ മതി

ആയിരുന്നല്ലേ ആ ഓക്കേ ആ ഉണ്ടല്ലേ ഓക്കേ ആ തരുമല്ലോ എത്ര ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു രണ്ടാഴ്ച്ചത്തെ ആ ഞങ്ങളൊരു ഒരാഴ്ച്ചയ്ക്കുള്ളില് ഞങ്ങൾ മൊത്തം ഡ്രൈ ക്ലീന് ചെയ്ത് എല്ലാവരുടേയും കൂടെ ഡ്രൈ ക്ലീന് ചെയ്ത് തന്നേക്കാം

റേറ്റ് വല്ല സാരിയൊക്കെ ഉണ്ട് നമുക്ക് അത് ആ നമുക്ക് അതൊരു മാക്സിമം വിലകുറച്ചൊരു റേറ്റ് കുറച്ച് തന്നെ മാഡത്തിന് അത് ചെയ്തു തരാം മാഡം ഇങ്ങനെ പ വിദേശത്തുന്നുള്ള കസ്റ്റമേഴ്സൊക്കെ ഞങ്ങള്ക്ക് ഒത്തിരി വരുന്നുണ്ട് ഞങ്ങൾ അങ്ങ് റേറ്റ് കുറച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്

അതെയതെ അത് മിക്സ് ചെയ്ത് ഇടുകയില്ല സെപ്പറേറ്റ് ചെയ്തിട്ടേ ഇടുകയുള്ളൂ

അതെയതെ ആ മതി മതി മതി ആ ഓക്കേ ഓക്കേ ആ മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട ഡ്രെസ് കൊടുത്ത് വിട്ടോ ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തു കൊടുത്തോളാം ആ ഓക്കേ ഓക്കേ താങ്ക് യൂ താങ്ക് യൂ